ഹലോ ഇത്

ആ പറഞ്ഞോളു എന്താണ് ആ ഹാ അത് ഏതിനത്തിൽ പെട്ടതാണ് അത് ലാബ് നിങ്ങൾ എവിടെ അതിനെ കിടത്തുന്നത് എവിടത്തുന്ന് ടൈൽസിലാല്ല്യോ തറ തുടയ്ക്കുന്ന എന്ത് വെച്ചാണ് ഡെറ്റോൾ ആ ഡെറ്റോളുപയോഗിക്കാൻ പാടില്ല ഡെറ്റോളും ലൈസോളൊന്നും ഉപയോഗിക്കുവാണെങ്കിൽ അതിന് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും പിന്നെ ആ പച്ചവെള്ളം എടുത്ത് അത് തുടയ്ക്കുന്നതാണ് ഏറ്റവും വൃത്തി അല്ലാതെ വേറൊരു ലോഷനുണ്ട് അത് ഇച്ചിരി വില കൂടിയത് ആ അത് വരാമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടുണ്ട് കൊഴിയുന്നുണ്ട് ആ അതിന് മരുന്നുണ്ടിവിടെ അതിവിടെ ഈ ടൈൽസിട്ട തറയിൽ കിടക്കുന്നോണ്ടാണ് കൂടുതലായിട്ടും കൊഴിയുന്നത് ആ കൊഴിയുന്നത് കൂട്ടിനത് ഷെള്ളിന് ഷെള്ളിനുള്ള മരുന്നുണ്ട് അത് ഒരു ലോഷനുണ്ട് അത് തൊട അത് തേച്ച് കുളിപ്പിച്ചാൽ മതി അത് ആ കുളിപ്പിച്ചാൽ പിന്നെ ആ ആ ചൊറിച്ചിനുള്ള ഗുളികയും കൂടെ തരാം വരാമെന്നുണ്ടെങ്കിൽ ആ ആ വേറെ വേറെ വേറെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല ഇവിടെ വന്നാൽ ഞാൻ ആ മരുന്ന് എഴുതി തരാം അത് പുറത്തുന്നുള്ളതല്ലെങ്കിൽ ഇവിടുണ്ടെങ്കിൽ എടുത്ത് തരാം ചെയ്യാം പിന്നെ കൂടുതലായിട്ടും ഈ ടൈൽസിട്ട തറയിൽ നിലത്ത് ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതാ രോമം ശരിക്ക് കൊഴിയുന്നത് ആ ആ ആ വേറെ ഒന്നും കൊടുക്കൊന്നും വേണ്ട ഞാൻ തരുന്ന ഞാൻ തരുന്ന മരുന്നങ്ങ് കൊടുത്ത് കഴിഞ്ഞ് വന്നാൽ മതി കാണും കാണും എപ്പോൾ എപ്പോൾ എപ്പോൾ വേണേലും വിളിച്ചാൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ കാണും വേറെ ടോണിക്ക് തരാം ഇത് രോമം കൊഴിയാതിരിക്കാൻ വേണ്ടി ടോണിക്കുണ്ട് അത് കൂടെ തരാം അതും കൂടെ കൊടുത്തോ ആ ആ

നാളെ ഇങ്ങോട്ട് വാ വന്നിട്ടവിടെ തരാം